എൻ ഞാൻ നിങ്ങൾ ബൈ നിങ്ങളുടെ മീഡിണം റീജിയണിന് കീഴിലുള്ള ഒരു ഉപഭോക്താവാണ് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പതിമൂന്നിന് വൈകിട്ട് ആറ് മണി മുതൽ അതിൻറെ അടുത്ത ദിവസം ജൂലൈ പതിനാല് രാവിലെ പത്ത് മണിവരെ എൻറെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമായിരുന്നില്ല ഈ ഈ ലഭ്യത കുറവുമൂലം എനിക്ക് വളരെയധികം നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് വൈകുന്നേരം യൂറോ കപ്പ് ഫൈനലും രാവിലെ കോപ്പ അമേരിക്ക ഫൈനലും ഒക്കെ ഉണ്ടായിരുന്നു ജൂലൈ പതിമൂന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം ആയിരുന്നു യൂറോ ഫൈനലും പിന്നെ കോപ്പ അമേരിക്ക ഫൈനൽ ജൂലൈ പതിനാല് രാവിലെ ആയിരുന്നു നടക്കുന്നത് നിങ്ങൾ ഈ വൈദ്യുതി മര്യാദയ്ക്ക് തരാത്തത് കാരണം ഞങ്ങൾക്ക് എനിക്ക് അന്ന് കാണാൻ സാധിച്ചില്ല ആ മത്സരങ്ങൾ കാണാൻ സാധിച്ചില്ല അത് കൂടാതെ എൻറെ വീട്ടിൽ ഈ മുട്ട വിരിയിക്കുന്ന മെഷീൻ ഒക്കെ ഉണ്ട് ഈ മെഷീൻ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര മണിക്കൂറുകൾ വൈദ്യുതി വൈദ്യുതി തരാത്തത് കാരണം ഈ മുട്ട മുഴുവൻ അഴുക്കാകുകയും അതുമൂലം ഞങ്ങൾക്ക് വളരെ അധികം നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഏക ഏകദേശം അറുനൂറോളം മുട്ടകളാണ് ഞങ്ങൾക്ക് നഷ്ടം ആയത് ഇതിൽ താറാവിൻറെ മുട്ട കോഴിയുടെ മുട്ട കൽക്കത്തിൻറെ മുട്ട തുടങ്ങിയ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം എന്ന രീതിയിൽ എന്തെങ്കിലും തരുന്നതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ മേലാധികാരികളോ അങ്ങനെയുള്ള അധികാരത്തിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണമെന്ന് എനിക്ക് താൽപ്പര്യപ്പെടുന്നു എൻറെ എൻറെ കൺസ്യൂമർ നമ്പർ വൺ ടു ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ എന്നാണ് മലയാളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നതാണ് എ എൻറെ എൻറെ കൺസ്യൂമർ നമ്പർ നോക്കി എന്നെ ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വിശദീകരണം തരുന്ന തരുന്ന തരേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് കൂടാതെ നിങ്ങളുടെ ആ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഓഫീസിലേക്ക് ഞാൻ വൈകുന്നേരം ജൂലൈ പതിമൂന്ന് രാത്രി വൈകിട്ട് എട്ട് മണി എട്ട് മണി സമയത്ത് വിളിച്ചപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിൻറെ ഭാഗത്തുനിന്നും വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് ഇ ഇതൊക്കെ കാരണം ഞാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നഷ്ടപരിഹാരം എന്ന രീതിയിലോ അല്ലെങ്കിൽ വിശദീകരണം ആഗ്രഹിക്കുന്നു ഇനി ഇങ്ങോട്ട് പോ എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ് ഒന്ന് അഞ്ച് ആറ് എട്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് എന്ന നമ്പർ ആണ് ഈ നമ്പറിൽ വിളിച്ച് എനിക്ക് വിശദീകരണമോ അല്ലെങ്കിൽ നഷ്ടപരിഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മേലാധികാരികളോട് എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു